ഇവിടെ ഏറ്റവും കൂടുതൽ സിം കമ്പനികൾ ഉള്ളത് ജിയോയും ഏയർട്ടലും വി ഐ ഉം ബിയസെന്നലുംമൊക്കെയാണ് ബിയസെന്നലിനു ഇവിടെ ഒരു എക്സ്ചേഞ്ച് തന്നെ ഉണ്ട് ആദ്യ കാലങ്ങളിൽ ബിയെസെന്നലായിരുന്നു ഏറ്റവും മെച്ചപ്പെട്ടത് എല്ലാവർക്കും നെറ്റ്വർക്കും കവറേജും ഒക്കെ കിട്ടുന്നത് ബിയസെന്നൽ ഒക്കെയാണ് പക്ഷേ പുതിയ പുതിയ സിമ്മുകൾടെ വരവേറ്റത്തോടെ ജിയോ ഏയർടെൽ പോലുള്ള കമ്പനികൾ അവർക്ക് നെറ്റ്വർക്ക് വേഗത ഉള്ളതാക്കുന്നത് കൊണ്ട് ആളുകൾ അവരിലേക്ക് ആകൃഷ്ടരാവുകയാണ് നമ്മുടെ അടുത്ത് തന്നെ പല സിമ്മിൻ്റെയും ആപ്പീസ് വർക്ക് ചെയ്യുന്നുണ്ട് അത് ജിയോയും ഏയർട്ടലും ഒക്കെ വി ഐ യും ഒക്കെ ഇവിടെ വർക്ക് വർക്കാവുന്നതാണ് അവർ നല്ല നല്ല സേവനങ്ങളും സൗകര്യങ്ങളും കൂടുതൽ ഡാറ്റകളും ചെയ്ത് കൊടുക്കുന്നതു കൊണ്ട് തന്നെ അവരിലാണ് ഏറ്റവും ആകൃഷ്ടരാവുന്നത്